എനിക്കേറ്റവും മനോഹരമായും പ്രിയപ്പെട്ടതായും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു ഊട്ടി ഞാൻ പണ്ട് മുതലേ ഒരു യാത്ര ചെയ്യാനാഗ്രഹിച്ചിരുന്നൊരാളാണ് എനിക്കെപ്പോഴും യാത്രകളോടൊരു പ്രത്യേകതരം ഇഷ്ടമാണ് യാത്ര പോകുമ്പോളെന്റെ മനസ്സിൽ ആകെ സന്തോഷിക്കുന്ന നിമിഷം നമ്മുടെയെല്ലാ ദുഃഖവും മറക്കാൻ കഴിയുന്നൊരു നിമിഷമാണ് യാത്രകൾ അങ്ങനെ ഞാൻ പണ്ട് മുതലേ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഞങ്ങളുടേതായൊരു അവസ്ഥകളെ കൊണ്ടെനിക്കത് പോകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനിരിക്കെ ഒരു ദിവസമാണ് ഞങ്ങളുടെ കോളേജ് കാലഘട്ടത്തിലെനിക്കൊരു സ്കൂൾ ടൂർ കോളേജ് ടൂറ് പോകാൻ കഴിഞ്ഞത് അതായത് ഞങ്ങളന്ന് പോയത് ഊട്ടിക്കാണ് രണ്ട് ദിവസം ഊട്ടിയിൽത്തന്നെയായിരുന്നു ഊട്ടിയിൽ പോകാനായിട്ട് ഞാനൊരുപാട് റെഡിയായിരുന്നു കാര്യം ഞാനത്രത്തോളം ആഗ്രഹിച്ച സ്ഥലമായതിനാൽത്തന്നെ ഞാനൊരുപാട് പ്രിപ്പയറ് ചെയ്തു എന്തെല്ലാം കൊണ്ടുപോകണം എങ്ങനെയായിരിക്കും സ്വെറ്ററുൾപ്പെടെ എല്ലാ കാര്യങ്ങളും പായ്ക്ക് ചെയ്യുന്നു അന്നുമുതൽത്തന്നെ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡായിരുന്നു എനിക്ക് അവിടെച്ചെന്ന് ഭയങ്കര ആകാംക്ഷയോടെ തന്നെയായിരുന്നു ഞാനത് കാത്തിരുന്നത് അങ്ങനെയാ ദിവസം ഞങ്ങൾ പുറപ്പെട്ടു ബെസ്സിൽക്കേറിയ നിമിഷം തൊട്ടേ ഞാനാ ഊട്ടിയിൽ ചെല്ലുന്നതും ഊട്ടിയുടെ ഭംഗിയും ആലോചിച്ചുതന്നെയിരുന്നു ഓരോ നിമിഷവും ഫോണെടുത്ത് വെച്ച് ഫോണിൽ ഊട്ടിയുടെ ഫോട്ടോകളെല്ലാം കണ്ട് സന്തോഷിച്ചോണ്ടിരുന്നു അവിടെയിപ്പോൾ ചെല്ലാമെല്ലോയെന്നുമ്പറഞ്ഞ് ചെന്ന സമയംതന്നെ ആകെ മഞ്ഞ് മൂടി നിൽക്കുകയായിരുന്നു അത് കണ്ടപ്പോള്ത്തന്നെയെനിക്ക് വളരെ സന്തോഷമായിരുന്നു കാണുമ്പോൾത്തന്നെയൊരു കുളിർ മഴ പെയ്ത പോലെയായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ റൂമെടുത്തു അവിടെ ആ റൂമിൽ കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോഴും എനിക്ക് പുറത്ത് പോയാ രാത്രി ആസ്വദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പരിമിതികൾ ഉള്ളായതിൽത്തന്നെ ഞങ്ങൾ അകത്ത് തന്നെയിരുന്നു ആ ജനലില്ക്കൂടെ ഞാൻ എല്ലാ കാഴ്ചകളും കാണാൻ ശ്രമിച്ചു അങ്ങനെ നേരം പുലർന്നപ്പോൾ ഞങ്ങൾ ഊട്ടിയിലെ എല്ലാ അവിടുത്തെ ഗാർഡനുകളും പൂന്തോട്ടങ്ങൾ ഉള്പ്പെടെ അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലേക്കും സഞ്ചരിക്കാന് തുടങ്ങി അവിടത്തെ പൂന്തോട്ടങ്ങൾ എന്ത് മനോഹരമാണ് എല്ലാവിധ പൂക്കളുമായി എന്താ ഭംഗിയായിരുന്നു അങ്ങനെ ഓരോ പൂക്കളും കണ്ട് ഓരോ പൂക്കളുടെയും പടങ്ങൾ ശേഖരിച്ചു എല്ലാത്തിൻറ്റെയും ഇതളുകൾ ശേഖരിച്ചു അവടെ ഞങ്ങൾ വീണ് തറയിൽ പൊഴിഞ്ഞ് കിടക്കുന്നൊരു പൂക്കളായ് പെറുക്കിക്കൊണ്ടു പോരുന്നു നമുക്ക് ആ ഒരു ഭംഗി ആസ്വദിക്കുമ്പോൾത്തന്നെ അതുപോലെതന്നെ കൊടും മഞ്ഞ് ആ കൊടും മഞ്ഞിൻ്റെടയിലൂടെ കുറച്ച് പകൽ നേരങ്ങളിൽ കുറച്ച് വെയിലടിക്കും ആ വെയിലത്ത് മരങ്ങളെല്ലാം സൂര്യൻ്റെ പ്രഭ തട്ടുമ്പോൾ മിന്നിത്തിളങ്ങുന്നു അത് കാണാനെന്തൊരു മനോഹരമായിരുന്നു മരങ്ങളാകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന മരങ്ങളുടെ ഇലകളിലിടയിലൂടെ ആ കൊമ്പുകളുടെ ഇടയിൽക്കൂടെ ആ സൂര്യൻ്റെ വെയിൽ തട്ടുമ്പോൾ ഇലകൾ ആഹാ എന്താ മനോഹരമായ കാഴ്ച ആയിലകൾ തിളങ്ങുന്നു അന്നിങ്ങനെ കണ്ട് കണ്ട് നിന്നിരുന്ന കുറേ കാഴ്ചകൾ കണ്ടു അവിടുന്ന് ഞങ്ങൾ നേരെ തേയിലത്തോട്ടം സഞ്ചരിച്ചു തേയിലത്തോട്ടങ്ങളും തേയില ഉണ്ടാക്കുന്ന ഫാക്ടറികളും തേയിലയുടെ ഗുണങ്ങളും എല്ലാം അവിടുന്നു മനസിലാക്കി എങ്ങനെയാണൊരു തേയില കിട്ടുന്നതും ആ തേയിലയുടെ ഗുണമെന്താണ് എല്ലാം കണ്ടറിഞ്ഞു കണ്ടറിഞ്ഞു തൊട്ടറിഞ്ഞു എല്ലാം ചെയ്തു അതിന് ശേഷം ഞാൻ പിന്നേ എനിക്ക് രാത്രിയായപ്പോൾ ആ മഞ്ഞിൻ്റെ ഇടകളിലൂടെ ഫയര് ഞങ്ങൾ വിറക് കൂട്ടി തീ കത്തിച്ചു അതിൽ നിന്ന് ചൂട് പകർന്നു കൊണ്ടേയിരുന്നു ആ ചൂട് പകർന്നതിനിടയിലും ആ തണുത്ത കാറ്റ് വീശുമ്പോൾ നമുക്കൊരു കുളിർമഴ പോലെയായിരുന്നു ആ മൂടൽ മഞ്ഞിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് പരസ്പരം ആരെയും കാണാൻ പോലും കഴിയില്ലാരുന്നു അത്രയും മഞ്ഞ് പിടിച്ച് കിടന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക സുഖമായിരുന്നു ഞാനാദ്യമായി പോകുന്നതിനാൽത്തന്നെ എനിക്കത് വളരെ നല്ല മനോഹരമായൊരു കാഴ്ചയായിരുന്നു കൂട്ടുകാരോടൊത്ത് ഉല്ലസിക്കുന്നതിനിടയിൽക്കൂടെപ്പോലും ഞാൻ പ്രകൃതി ആസ്വദിക്കാൻ മറന്നിരുന്നില്ല എല്ലാ പ്രകൃതിയിലും പ്രകൃതിയിലെല്ലായിടത്തും എല്ലാം മനോഹരമായ കാഴ്ചകളാണ് എങ്കിലും ഞാനവിടെ ഒരുപാട് സന്തോഷത്തോടെയാണ് അവിടെ വാട്ടർ ഫാൾസ് അവിടെത്തന്നെ നമുക്ക് കുറേ വാട്ടറിങ്ങ് അങ്ങനുള്ള എല്ലാ കാര്യങ്ങളിലും വെള്ളങ്ങളും ബീച്ച് സൈഡ് പോലുള്ള അവടൊക്കെ നമുക്ക് ബോട്ടിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയി അവടൊക്കെ ചെല്ലുമ്പഴേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയതെന്താന്നാൽ ആ ബോട്ടുകൾ പോകുമ്പോൾ കുറേ ബോട്ടുകൾ പോകുന്നത് വെള്ളത്തിൽ തന്നെയുള്ള കുറേ ഐലൻറ്റുകളുടെ ഇടയിലൂടെ പോകുന്ന പോലെയായിരുന്നു അപ്പുറവും ഇപ്പുറവും കാടുകൾ അതിനു നടുക്കുള്ള അരുവിയിലൂടെ ഒഴുകിപ്പോകുന്നതു പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ എപ്പോഴും ഭയങ്കര സന്തോഷത്തോടു കൂടെ നോക്കിക്കാണുകയായിരുന്നു എന്ത് മനോഹരമായ കാഴ്ച ആഹാ കൂട്ടുകാരെല്ലാം കൂടെ സന്തോഷിച്ച് ഞാനാ കാഴ്ചകള് എനിക്കിന്നും ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലവും ഇഷ്ടപ്പെട്ട സ്ഥലവും ഊട്ടിയാണ് ഇനിയങ്ങോട്ട് പോകാനും എനിക്കൊരുപാട് താല്പര്യമാണ് എത്ര യാത്ര ചെയ്താലും മതിയാവാത്ത സ്ഥലം നമ്മളെ മനസിൽ സന്തോഷം വിടർത്തുന്ന സ്ഥലം